സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ മറ്റ് ഭാഷകൾ മലയാള ഭാഷയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ സംസ്കൃതം അധികം സ്വാധീനിച്ചിട്ടില്ലെന്ന് പറയാം കാരണം വിദ്യാഭ്യാസ മേഖലകളിൽ മാത്രമാണ് സംസ്കൃതം കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ടും പിന്നെ ക്ഷേത്രങ്ങളിൽ തുടങ്ങിയ മേഖലകളിലായിട്ടും സംസ്കൃതം ഉപയോഗിക്കുന്നു ഇത് മൂലം മലയാള ഭാഷ ഒതുങ്ങുന്നു എന്നൊരു രീതിയിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതായത് മലയാള മലയാളത്തേക്കാൾ കൂടുതൽ പ്രധാന്യം നൽകാൻ സംസ്കൃതത്തിന് ശ്രമിക്കുന്നു ഇംഗ്ലീഷ് എന്നാൽ ഇംഗ്ലീഷ് മറ്റു ഭാഷകളേക്കാൾ കൂടുതൽ സ്വാധീനം ചുമത്തി ഇരിക്കുന്നത് മലയാളം ഭാഷയാണ് കാരണം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകട്ടെ പൊതു സ്ഥലങ്ങളിലാകട്ടെ സമൂഹങ്ങളിലാകട്ടെ ഒരു ഏതെങ്കിലും ഒരു വാക്ക് എങ്കിലും ഇംഗ്ലീഷിൽ സംസ് സംസാരിക്കാതിരിക്കാൻ ആൾക്കാർ ശ്രമ ശ്രമിക്ക ശ്രമിക്കുന്നില്ലെന്ന് തന്നെ പറയാം കാരണം കാരണം ഇംഗ്ലീഷ് എന്ന വാക്ക് ഭാഷ അത് എല്ലാ മേഖലയിലും നിറഞ്ഞിരിക്കുകയാണ് സ്കൂളുകളിലാകട്ടെ കുട്ടികൾക്ക് കൂടുതൽ മലയാളത്തേക്കാൾ കൂടുതൽ ഇംഗ്ലീഷാണ് അവർക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് എന്നാൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കൂടുതൽ കുട്ടികൾക്കും മലയാളത്തെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല ചിലപ്പം സംസാരിക്കാൻ അറിയുമെങ്കിലും മലയാള ഭാഷയിൽ എഴുതുവാനോ വായിക്കുവാനോ അറിയത്തില്ല എന്നാൽ എഴുതുവാനും വായിക്കുവാനും അറിയുന്ന വിദ്യാർത്ഥികൾക്ക് ഭാഷ പറയുവാനായിട്ട് നമുക്ക് അറിയാമല്ലോ അങ്ങനെ കുറച്ചു പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടു തന്നെ മാതൃ ഭാഷയായ മലയാളം ഒരു സൈഡിലേക്ക് ഒതുങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്